എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കായിക താരം എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കാരണം ആളെന്ന് പറയുന്നത് എന്താ പറയാ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടിട്ട് ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് അദ്ദേഹത്തിന് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒക്കെ അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട് പിന്നീട് എന്താണ് പറയാ സാധാരണ ആൾക്കാരോട് പോലും നല്ല രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്നുവരെ എന്താണ് പറയാ ഒരു മുഖത്ത് ഒരു അഹങ്കാരത്തോടെയോ അങ്ങനെ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല ആൾ പിന്നെ ആൾ ആളുടെ ആ ഒരു എന്താണ് പറയാ സ്വഭാവം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആളുടെ കൂടെ ആളെ കാണാൻ ഉള്ള ഒരു അവസരം എനിക്ക് ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഫോ എന്താ പറയാ ഒരു പി ഇത് ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ട് അതാണ് എൻ്റെ ലൈഫ് ൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഏറ്റവും വലുതെന്ന് ഞാൻ പറയില്ല എന്നാലും എന്നിരുന്നാൽപോലും മനസ്സിലുള്ള ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് അങ്ങനെയൊരു ഇത് എടുക്കണം എന്നുള്ളത് പിന്നെ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്